ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് കൂടുതലായും കപ്പ ചേന ചേമ്പ് വാഴ ഇതൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത് കുറച്ചു നാളായിട്ട് അങ്ങനെ മൃഗങ്ങളുടെ വലിയ ശല്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു നാല്പതു മൂട് കപ്പ കാട്ടുപന്നി നശിപ്പിച്ചുകളഞ്ഞു അതിനെതിരെ ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകാരണം വീണ്ടും കപ്പ ഇടാൻ എല്ലാർക്കും മടിയാണ് കാരണം ഒരു പ്രാവശ്യം പണ്ട് രണ്ടു രണ്ട് മൂന്ന് വർഷങ്ങൾക്കുമുമ്പ് ഇതുപോലെ ഒന്ന് കപ്പ നശിപ്പിച്ചതാണ് അതിനുശേഷം വലിയ ശല്യമൊന്നുമില്ലായിരുന്നു പിന്നെ അടുത്തുള്ള വീട്ടിലെ പട്ടിയെ അഴിച്ചുവിടുമ്പോൾ ഈ പന്നി ശല്യം വളരെ കുറവുണ്ട് അവര് പട്ടിയെ അഴിച്ചുവിടാത്തപ്പോഴും കൂടുതലും പന്നികളൊക്കെ കൂട്ടമായിട്ട് വരുന്നുണ്ട് പിന്നെ കുറുക്കൻ്റെ ശല്യങ്ങളൊക്കെയുണ്ട് പക്ഷെ കാർഷിക വിളകളൊക്കെ കൂടുതലായും നശിപ്പിക്കുന്നത് കാട്ടു പന്നിയാണ് എലിയെക്കൊണ്ടു വലിയ ശല്യം അങ്ങനെ ഉണ്ടാകാറില്ല അതുകൊണ്ടിപ്പോള് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ വളരെ അധികം കഷ്ടത്തിലാണ് പന്നി ശല്യം മൂലം ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് ഇത് ഇവിടെ അടുത്തുള്ള ഒരു കുറേ വീടുകളിലെ അവരുടെയൊക്കെ കൃഷി സ്ഥലങ്ങളിലെ എല്ലാം തന്നെ വിളകള് കാട്ടുപന്നിയാണ് നശിപ്പിച്ചുകളഞ്ഞത് അതിനെതിരെ എന്തു ചെയ്യണമെന്നറിയാതെ ആൾക്കാരിങ്ങനെ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുടെ വിളകളൊക്കെ അതു കാരണം ഒത്തിരി നഷ്ടപ്പെട്ടു വിളഞ്ഞുവരാറായ കപ്പകളൊക്കെയാണ് മൂടോടെ തന്നെ അത് നശിപ്പിച്ചുകളഞ്ഞത് അതുകാരണം ആൾക്കാർക്കു കൃഷിചെയ്യാൻ തന്നെ ഇപ്പോൾ മടിയായിട്ടിരിക്കുകയാണ്